യാത്ര ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് യാത്ര എന്ന് പറഞ്ഞാല് അത് ബസ്സിലാണേലും സ്വന്തം വണ്ടിയിലാണേലും കൂട്ടുകാരൊത്താണേലും എങ്ങനായാലും ട്രാവലിംഗ് എല്ലാവർക്കും ഒരു ഹോബിയായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് അനവധി ടൂറിസ്റ്റ് പ്ലേസുകള് ഓരോരോ ദിവസങ്ങൾ അനുസരിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോള് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും ഉയ്യോ ആ സ്ഥലത്ത് വേറൊരു സ്ഥലം ഉണ്ട് അവിടെ ഇതിലും നല്ലതാണെന്നോര്ക്കുമ്പോൾ നമ്മള് അങ്ങോട്ടേക്കൊക്കെ പോവൊക്കെ ചെയ്യും ഇപ്പോള് ട്രാവലിംഗ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് എനിക്ക് കൂടുതലും കൂട്ടുകാരൊത്ത് ട്രാവലിംഗ് നടത്താനാണ് ഇഷ്ടം ട്രാവലിംഗ് നടത്തുന്ന സമയത്താണെങ്കില് ഓരോ സ്ഥലങ്ങളില് ചെല്ലുമ്പോള് വ്യത്യസ്ത ഫുഡുകള് ഇപ്പോള് നമ്മള് ഈ ഇടുക്കിയില്നിന്നൊക്കെ എറണാകുളം ഒക്കെ പോവുമ്പോള് ആദ്യമായിട്ട് ചെല്ലുമ്പോള് അയ്യോ ഇത്രയും വലിയൊരു ടൗണാണോന്നൊക്കെ നമുക്ക് പേടിയാവും കാരണം ഒറ്റയ്ക്ക് വണ്ടി കൂട്ടുകാരൊക്കെക്കൂടെ ചിലപ്പോള് വണ്ടി ഓടിച്ച് പോവുമ്പോള് വേറെ വണ്ടി വന്ന് നമ്മളെ ഇടിക്കുമോ ഇല്ലേല് നമ്മള് വണ്ടി നിർത്തി ഇട്ടിട്ട് നമ്മളും അങ്ങോട്ടെറങ്ങുമ്പോള് നമ്മടെ പേഴ്സൊക്കെ അടിച്ചോണ്ട് പോവുമോ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ചെല്ലുമ്പോള് പേഴ്സടിച്ചോണ്ട് പോവുമോ എന്നൊക്കെ ഉള്ള പല ആശങ്കയും കാര്യങ്ങളും നമുക്ക് ഇപ്പോഴുണ്ട് പിന്നെ ഫുഡ് ഫുഡെന്ന് പറയുമ്പോള് ഏറ്റവും നല്ല ഫുഡ് എവിടെയാണോ കിട്ടുന്നത് ആ ഫുഡ് തപ്പി ചെല്ലുന്ന ഒരു ജനറേഷനാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ലോകത്തുള്ളത് അപ്പോള് എവിടെ നല്ല ഫുഡുണ്ടോ അവിടെ മനുഷ്യരുണ്ട് ഇല്ല യുവജനങ്ങളുണ്ട് അങ്ങനെ ഫുഡിന് വേണ്ടി മാത്രം ആയിട്ട് ട്രാവലിംഗ് നടത്തുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്നും പിന്നെ അതുപോലെ തന്നെയാണ് വെള്ളച്ചാട്ടങ്ങള് പിന്നെ പാർക്കുകള് പിള്ളാരെയും കൊണ്ടൊക്കെ പോവാണെങ്കില് അവരെ വലിയ വലിയ പാർക്കുകളിലൊക്കെ കൊണ്ടു പോവുകയും പിന്നെ നമ്മുടെ കൊച്ചി മെട്രോ വാട്ടർ മെട്രോയൊക്കെ കയറുമ്പോള് അങ്ങനെ അതൊക്കെ നമ്മുടെ ജീവിതത്തില് കാണാത്ത വലിയ വലിയ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങള് നമ്മുടെ നാട്ടില് വരുമ്പോഴൊക്കെ നമ്മൾ അടുത്തുള്ള പട്ടണങ്ങളിലൊക്കെ വരുമ്പോള് നമ്മള് കാണാനൊക്കെയായിട്ട് സ്വാഭാവികമായിട്ട് പോവുകയും ചെയ്യണം അതൊക്കെ കയറി നമ്മള് വിനിയോഗിക്കുകയൊക്കെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ജീവനും ചിലതൊക്കെ ആപത്തുകളൊക്കെ ഉണ്ടാകും മെട്രോയിലൊക്കെ കയറുമ്പോള് മെട്രോ നിർത്തിവച്ചിട്ട് നമ്മള് ഇറങ്ങാനും കയറാനൊക്കെ ശ്രമിക്കണം അതുപോലെ തന്നെ വാട്ടർ മെട്രോയിലൊക്കെ നമ്മള് കയറുമ്പോള് ശ്രദ്ധിച്ച് അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്ത് ഇപ്പോള് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻകരുതലുകൾ എടുക്കാനായിട്ടുള്ള ഇതൊക്കെ നമ്മള് നോക്കും അതിനുള്ള ഡ്രസ്സൊക്കെ ധരിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ വന്ന് കഴിയുമ്പോഴാണ് നമ്മക്ക് ട്രാവലിംഗ് കൂടുതലും നമ്മുടെ ജീവിതത്തില് ആശങ്ക ഇല്ലാണ്ട് നമുക്ക് പോവാൻ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മള് ചെല്ലുമ്പോള് അവിടെ നമ്മള്ക്ക് ലാംഗ്വേജ് ഒക്കെ നമുക്ക് പ്രശ്നം ആവും ഇപ്പോള് ഉദാഹരണം ഗോവയൊക്കെ ചെല്ലുവാണെങ്കില് അവിടെയൊക്കെ ഹിന്ദി പറയുന്നുണ്ട് ഇംഗ്ലീഷുണ്ട് മറാട്ടി ഉണ്ട് ഉറുദു ഉണ്ട് പല ലാംഗ്വേജുകാരും ഇപ്പോള് ഗോവ അങ്ങനുള്ള സ്ഥലങ്ങളിലൊക്കെ വരും അപ്പോള് നമുക്ക് അവിടെ ലാംഗ്വേജിന് പ്രശ്നം ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അവര് എന്നതാ പറയുന്നേ ഇപ്പോള് നമ്മള്ക്കൊരു റൂമൊക്കെ എടുത്ത് തന്നിട്ടാണേലും നമ്മള്ക്ക് നമ്മളുടെ സുരക്ഷിതത്വം നമ്മള് നോക്കിയായിരിക്കും നമ്മള് ചിലപ്പോള് നില്ക്കാറൊക്കെ ഉള്ളത് അപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങൾ അടിച്ചോണ്ട് പോവുമോ അങ്ങനെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങള് ഇന്നത്തെ കാലത്തുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് അതുപോലൊക്കെ തന്നെയാണ് നമ്മൾക്ക് പട്ടണങ്ങളിലേക്ക് നമ്മുടെ ചെറിയ ചെറിയ പട്ടണങ്ങളിൽ നിന്നും നാട്ടിലെ പട്ടണങ്ങളിലെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കൊക്കെ പോവുമ്പോഴും പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വരുമ്പോള് ഒരുപാട് ഒരുപാട് ചേഞ്ചുകള് നമ്മള്ക്ക് ഉണ്ടാകാറുണ്ട് പട്ടണമെന്നു പറഞ്ഞു കഴിഞ്ഞാല് വലിയ ആൾക്കാര് തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന സ്ഥലവും ഗ്രാമങ്ങളെന്ന് പറയുമ്പോള് ചെറിയ ചെറിയ കുടിലുകളായിട്ട് കൃഷി ആവശ്യങ്ങളോ ജോലി ഒക്കെയായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോള് നമ്മള് ട്രാവലിംഗൊക്കെ ചെയ്ത് പോവുമ്പോള് ഈ തേയില തോട്ടത്തില് കൂടിയൊക്കെ പണിയാൻ പോവുന്നവര് പ്ലാസ്റ്റിക്കും കൂട ഒക്കെയായിട്ട് പോവുന്നതു കാണുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോള് സുരക്ഷിതത്വത്തിൽ നമുക്ക് ആശങ്കകൾ ഉണ്ടാകാറുണ്ട് ഒത്തിരി ആശങ്കകളുണ്ടാകാറുണ്ട് കാരണം ഇപ്പോള് പിള്ളാരെ ഒക്കെ സ്കൂളീന്നൊക്കെ ടൂറ് വിടുവാണെങ്കില് വീട്ടില് ഇരിക്കുന്നവർക്ക് ഒത്തിരി ആശങ്കയാണ് കാരണമെന്നു വച്ചുകഴിഞ്ഞാല് അവര് ഇങ്ങനെ പോയേക്കുവാണല്ലോ വന്നില്ലല്ലോ അവരെവിടെ എത്തി എന്നൊക്കെയുള്ള വിളിച്ചറിയിക്കാനുള്ള ഇപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന കാലങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളച്ചാട്ടം കടലിലൊക്കെ പോവുമ്പോള് വീട്ടുകാർക്ക് ഭയങ്കര പേടിയാണ് ദൈവമേ കൊച്ച് കടലില് പോയല്ലോ ഇന്നയാള് കടലിൽ പോയല്ലോന്നൊക്കെ ഉള്ള ഒരു ആശങ്കയാണ് അവർക്കുണ്ടാവുക കാരണം ഗ്രാമങ്ങളിൽ നിന്നും നമ്മള് പട്ടണങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് കടല് കായല് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോള് അങ്ങനൊക്കെ ഉള്ള ആശങ്കയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് ഒരുപാട് നേരിടുന്ന കാലങ്ങളാണ്